നമ്മളുടെ നാട്ടിൽ നർത്തകർ വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നൃത്തത്തിന് ഒരു പ്രായപരിധി നമ്മുടെ നാട്ടിലുണ്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും നൃത്തം ചെയ്യാം എന്നാൽ കുറച്ച് ഒന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ ശരീരം അനങ്ങിയുള്ള ഒരു നൃത്ത ഇതൊന്നും എല്ലാ ഇടങ്ങളിലുമൊന്നും എല്ലാ കുട്ടികളേയും അനുവനുവദിക്കണമെന്നില്ല എന്നേയും അനുവദിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു കാര്യം വളരെ ഒരു ഒരു ഒരു ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് എല്ലാവർക്കും നൃത്തം ചെയ്യാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല ചില ജാതിയിൽപ്പെട്ട ആൾക്കാർ നൃത്തം ചെയ്യാൻ പാടില്ല ചില ആൾക്കാർ അതായത് ഇന്ന് നിറത്തിന്റെ പേരിലൊക്കെയുള്ള ഉള്ള അവഗണനകൾ ഈ ഒരു തരത്തിലുള്ള ആൾക്കാർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നൃത്തത്തിന് പ്രത്യേകിച്ച് കാര്യം പാട്ട് നൃത്തം കളിക്കാനായിട്ട് പ്പം ഒരു സ്റ്റേജിലേക്ക് കയറിക്കഴിഞ്ഞിട്ട് വേദിലേക്ക് കയറുമ്പം ആ കുട്ടിയുടെ നിറം ആ കുട്ടിയുടെ സൗന്ദര്യം എല്ലാം അവിടെ തൂക്കപ്പെടുകയാണ് അപ്പം ആ ഒരു പ്രശ്നം ഉള്ളത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പല സമൂഹത്തിന്റെ പല പല മേഖലകളിൽ നിന്നും ഇത് കേൾക്കുകയുണ്ടായിട്ടുണ്ട് നൃത്തം ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അവരുടെ നിറത്തിന്റെ പേരിലും അവരുടെ ജാതിയുടെ പേരിലും ഒക്കെ ഉള്ള ഉള്ള വർണ വർഗ വിവേചനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതു മാത്രമല്ല നൃത്തത്തെ നൃത്തമായിട്ട് കാണാതെ മറ്റൊരു ഒരു കലയായിട്ട് കാണാതെ ഒരു ഒരു ഒരു ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ കണക്കാക്കുന്ന ഒരു സമൂഹവുമുണ്ട് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഇത് എങ്ങനെ നേരിടാമെന്ന് ചോദിച്ചാൽ വളരെ നല്ല പിന്തുണ നൽകി നമുക്ക് നമ്മൾക്ക് ആയ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള പിന്തുണ ഇതിന് നൽകി നൃത്തത്തിന് നൽകി നൃത്തത്തിനെ കുറച്ചു കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കണം മറ്റ് എല്ലാ കഴിവിനെ പോലെ തന്നെ നൃത്തവും വളരെ പ്രാധാന്യമുള്ള ഒരു കലാരൂപമായിട്ട് നൃത്തം അത് ഏത് നൃത്തമായിക്കോട്ടെ ശാസ്ത്രീയം നൃത്തമായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമയുടെ നൃത്ത ചുവടുകളായിക്കോട്ടെ ഏതാണെങ്കിലും അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നും അതിന്റെതായ ഭംഗി അതിനുണ്ടെന്നും ആൾക്കാരിലേക്ക് മനസിലാക്കാനും ആൾക്കാരിലേക്ക് എത്തിക്കാനും സാധിക്കണം